നൃത്തം ചെയ്യുകയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിനൊക്കെ ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും അതുപോലെത്തന്നെ ആരോഗ്യപരമായിട്ട് ചിന്തക്കുകയാണെങ്കിൽ നൃത്തം ചെയ്യുന്നത് ആരോഗ്യത്തിനു വളരെ നല്ലതാണ് അതായത് ഈ സാധാരണ ഈ കാലഘട്ടത്തിലെ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ടുള്ള വ്യായാമം ആർക്കും ഉണ്ടാവാറില്ല നൃത്തത്തിലൂടെയൊക്കെ നമുക്ക് അതൊരു പരിധി വരെ അത് തടയാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൃത്തം ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു മെയ്വഴക്കം ഉണ്ടാകും നമ്മുടെ മസിൽസിനും ബോൺസിനും എല്ലാത്തിനും അത് നല്ല രീതിയിൽ തന്നെ അത് എഫ്ഫെക്ട് ചെയ്യാറുണ്ട് പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് നൃത്തം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് ആ നൃത്തത്തിലോടുകൂടി ആ ഒരു പരിധിവരെയൊക്കെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും അതുപോലെത്തന്നെ നല്ല മെയ്വഴക്കം ഉണ്ടാകും ഇതൊക്കെയാണ് നൃത്തത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ